ഇപ്പോൾ അടുത്തുള്ള ആന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടെക്കെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമുക്ക് ചുരം ഇറങ്ങിപോകേണ്ടൊരു ആവശ്യമുണ്ട് അപ്പം ചുരം ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പോൾ ബസ്സിന് ബ്രേയ്ക്കില്ലായ്മ അങ്ങനെയെന്തെങ്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ ഇണ്ടാക്കാ ഉണ്ടാകും അപ്പോൾ നമുക്ക് ചുരം ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെയ്നായിട്ട് ട്രെയ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഈ ഈ ബസ്സിൽ യാത്രചെയ്യുന്ന അത്ര നല്ലൊരു ഇതല്ലല്ലോ അപ്പോൾ എപ്പോഴാണോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്കത് നല്ലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു സുരക്ഷിതത്വംന്ന് പറയുന്നത് നമുക്ക് ട്രെയ്നിലൊക്കെ ആയിരിക്കാം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രെയ്നിന് വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം ട്രെയ്നിനുണ്ടാവില്ല കാരണം എന്തെങ്കിലും ഈ ബംഗാളികൾ കൂടുതലായിട്ടും ഇ വരുന്നത് ട്രെയ്നിലായിരിക്കും അപ്പോൾ ട്രെയ്നിലിന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമ്മളെ പേഴ്സ് കാര്യങ്ങളൊക്കെ അടിച്ചുമാറ്റുക അങ്ങനെതെന്തെങ്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനും വലിയ സുരക്ഷിതത്വന്നും ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ മെയ്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്കിപ്പോൾ എവിടെങ്കിലും പോവാനും നല്ല രീതിയിൽ പോ പോയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കാം